അതെ നമ്മൾക്കിപ്പോൾ എൽ പി ജി കണക്ഷൻ ഉണ്ട് പണ്ട് കാലത്തൊക്കെ എല്ലാവരും അടുപ്പിലാന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ഇപ്പോൾ അടുപ്പിൽ പാകം ചെയ്യുന്നത് വീടുകൾ കുറവായിരിക്കും എല്ലാവരും എൽ പി ജി കണക്ഷൻ തന്നെയായിരിക്കും ഭാഷണമൊക്കെ പാകം ചെയ്യുന്നത് ആരും അങ്ങനെ പണിക്ക് നല്ല പണിയായതുകൊണ്ട് വിറക് ശേഖരിക്കാനും കാട്ടിലേക്ക് പോകണ്ടേ വിറക് ശേഖരിക്കാനും അടുപ്പിനു വെക്കാൻ പാകത്തിനാക്കി കൊത്തി മിനുക്കിയിട്ടുള്ള കൊണ്ട് വരണ്ടേ അതു കൊണ്ട് ആരും അങ്ങന പണിപ്പെട്ടിട്ട് പോകുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഗ്യാസുമ്മേൽ ഭക്ഷണം വെച്ചിട്ട് ശീലമായി പിന്നെ ഒരു മടിയാണ് അടുപ്പൊക്കെ കത്തിക്കാൻ പണി ആയത് കൊണ്ട് മടിയാണ് അത് കൊണ്ട് ഇപ്പം ആരും അങ്ങനെ മെനക്കെട്ട് അടുപ്പ് കത്തിക്കാനൊന്നും നിൽക്കുകയും ചെയ്യില്ല പിന്നെ എല്ലാവരും പറയുന്നതു കേൾക്കാം ഗ്യാസുമ്മേൽ വെച്ച് ഭക്ഷണത്തിനെക്കാളും കുറച്ച്ക്കൂടി രുചി അടുപ്പിൽ വെച്ച ഭക്ഷണത്തിനാണ് ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസുമ്മേൽ വെച്ച് ശീലമായതുകൊണ്ട് അടുപ്പങ്ങനാരും കത്തിക്കാനും നിൽക്കലില്ല വിറകെടുക്കാനും പോക്കില്ല ആ അങ്ങനെയെല്ലാ ആണ്